ഹലോ ഹലോ ഹലോ ആ അതെ ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു മസ്കറ്റിൽ നിന്ന് വിളിച്ചിരുന്നു ഗൈഡാണോ ആ ഹ ഹ ആ അപ്പം ഞാൻ ഇന്നലെ ചോദിച്ചിരുന്നല്ലോ ആറന്മുള വള്ള സദ്യയ്ക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഇന്നലെ അപ്പം ആ നാളെ നാളെ രാവിലെ ഒരു ഏഴര ആവുമ്പോൾ നെടുമ്പാശ്ശേരിയിൽ ലാൻഡാവും ഞങ്ങൾ നാല് പേർ ഫാമിലിയാണ് ഞങ്ങൾ നാല് പേരുണ്ട് അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് വരാൻ പറ്റുവാന്ന് പറയാൻ പറ്റുമോ ആ ആ ആ

ആ ആ ഹ ഹ ഹ ആ അപ്പോൾ അത് അവിടെ ഇപ്പോൾ അമ്പലത്തിൽ എത്ര മണിയാകുമ്പോഴത്തേനും അപ്പം വരണം അങ്ങനെ വല്ലതും ഉണ്ടോ വള്ളം വള്ള സദ്യ വള്ളസദ്യ ആ ആ ആ ആ ആ ആ ആ ആ ആണോ പക്ഷേ നമുക്ക് അന്നേരത്തേക്ക് വരാൻ പറ്റില്ലായിരിക്കും ഏഴരയ്ക്കെ അവിടെ വരുവുള്ളൂ അപ്പോൾ ഒരു ആ ആ ആ ഹ ഹ ഹ ഹ ആ ആ എലവൻ തേട്ടി ഒക്കെ ആവുമ്പോഴ്ത്തേനും എത്താൻ പറ്റും ആ ആ ആ ആ ആ എന്നാൽ ആ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ മതി അ ഹ ഹ ഹ പിന്നെ അതല്ല അവിടെ ഡ്രസ്സ് കോഡ് അങ്ങനെ വല്ലോം ഉണ്ടോ അമ്പലത്തിൽ കയറുന്നതിന് ആണോ ആ ഓക്കെ ഓക്കെ ആ ഹാ ഹാ ഹാ ആ ഹാ ഹാ ഹാ ഹാ ഓ ശരി ശരി അതുപോലെ ഓ ശരി ശരി ആ അതു പോലെ നമുക്കത് കഴിഞ്ഞിട്ടാണെങ്കിലും ഒന്ന് ഹൗസ് ബോട്ടിൻ്റെ ഒന്ന് പ്ലാൻ ചെയ്യണമെന്നുണ്ടായിരുന്നു അതൂടെ വേണമായിരുന്നു ഒരു ദിവസം സ്റ്റേ ഉൾപ്പെടെ കാരണം എന്തായാലും നമ്മളിവിടുത്തെ കഴിഞ്ഞിട്ട് അന്ന് തന്നെ പറ്റുവാണേൽ തന്നെ ലൈറ്റാകുവല്ലോ ഉച്ച കഴിയോലോ അപ്പോൾ പിന്നെ എന്തായാലും സ്റ്റേ ഒരു നൈറ്റ് സ്റ്റേയൂടെ അങ്ങനെ ആ നമുക്ക് എന്തേലും ആ അതെ അതെ അതെ അത് കുട്ടികൾക്കൊക്കെ ആണേൽ അതൊക്കെ കണ്ടാൽ കൊള്ളവുന്നുണ്ട് കാരണം ആർക്കും അറിയില്ല അതിനെപ്പറ്റി ഒന്നും അപ്പോൾ അതും ഒക്കെ ആ

ആ ആ പറ ആ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ ആ ആ ഓ ഹോ ഹോ ആ ഹ ഹ ഹ ഹാ ആ ഉള്ളത് ഹാ ഹാ ഹാ ഇതിൽ കഥകളിയും മോഹിനിയാട്ടവും മതി ആ രണ്ടെണ്ണം മതി ആ ആ ആ ആ ആ ആ

ആ അതെ അതെ അ ഹ ഹ ഹ ഓക്കെ ഓക്കെ പിന്നെ അതുപോലെ നമ്മളിപ്പോൾ ഇത്രയൊക്കെ ഇന്ന് അയ്യോ നാളെ ആണെ തന്നെ ഉച്ചകഴിഞ്ഞ് പിന്നെ നൈറ്റ് സ്റ്റേ അപ്പോൾ എത്ര ആയിരിക്കും ഈ പാക്കേജ് എത്രയാണ് വരുന്നതെന്ന് വല്ലോം പറയാൻ പറ്റുമോ ആ ആ അ ഹ ഹ ഹ ഹ അ ആ വെജാണ് വെജാണ് വെജ് ആ ഓ ശരി ആ ഹ ഹ അതിൽ റേറ്റൊന്നും ഇച്ചിരി ഒന്ന് ഡിസ്കൗണ്ട് ഒന്നും വരില്ല ആ ഹ ഹ ഹ ഹ ആ ഹ ഹ ഹ ആ ആ ആ ഓക്കെ ഓക്കെ ആ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആ ആ അങ്ങനെ ഓ ശരി ശരി ശരി ഓക്കെ ആ കുഴപ്പമില്ല ഇത്രയൊക്കെ ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ പിന്നെ പറയാം താ ശരി